പൗർണ്ണമി നേഴ്സായിട്ടു വർക്ക് ചെയ്താല്ലേ നമ്മുടെ ഈ നാട്ടിലുണ്ടായ കോവിഡ് കോവിഡിനെ കുറിച്ചിട്ടും അതു നമ്മുടെ ആൾക്കാരെ ബാധിച്ചതെങ്ങനെയാണെന്നും ഒന്നു പറയാമോ ആ ഞാൻ ചെത്തിപ്പുഴയിലായിരുന്നു വർക്ക് ചെയ്തത് ആ സമയത്ത് കോവിഡ് ഡ്യൂട്ടി ആയിരുന്നു കോവിഡ് ഡ്യൂട്ടിയുടെ സമയത്ത് ഒരുപാട് പേര് ഇങ്ങനെ ശ്വാസം മുട്ടലും അങ്ങനെ ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ടും പനിയും ചുമയും കാര്യങ്ങളുമായിട്ടൊക്കെ അഡ്മിറ്റായിരുന്നു അപ്പോൾ ഞാനവിടെ ശുശ്രൂഷിക്കുന്നുണ്ടായിരുന്നു അവരുടെയൊക്കെ ആ ആ ബുദ്ധിമുട്ടു കണ്ട് ഭയങ്കരമായിട്ടു സങ്കടം തോന്നി ശ്വാസം വിടാനായിട്ടു ബുദ്ധിമുട്ടായിട്ട് നമ്മൾ ഓക്സിജൻ സപ്ലെ കൊടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ വെൻറ്റിലേറ്ററിൽ കയറേണ്ട പേഷ്യൻ്റ് അങ്ങനെ വെൻറ്റിലേറ്ററിലൊക്കെ കയറ്റി അവർക്കതിലുള്ള ശുശ്രൂഷകളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ആൻറ്റിബയോട്ടിക് ഇൻജെക്ഷനും നെബുലൈസേഷനും ടാബ്ലെറ്റുകളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു ഇങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് കാ കണ്ടു നിൽക്കുമ്പോൾ നിന്നവർക്കു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവരുടെ ബുദ്ധിമുട്ടുകൾ കാണാനായിട്ട് ശ്വാസം വിടാനായിട്ടുള്ള ബുദ്ധിമുട്ടും പെട്ടെന്നാണവർ ഭയങ്കരമായിട്ട് സിക്കാകുന്നത് അതു നമുക്കായ അവർക്ക് അങ്ങനെയുള്ള ആ സമയത്തു നമ്മളവർക്ക് പ്രത്യേകമായിട്ടും വെൻറ്റിലേറ്ററുകൾ ആകേണ്ട പേഷ്യൻറ്റിനു വെൻറ്റിലേറ്ററിലൊക്കെയായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ആൻറ്റിബയോട്ടിക് നെബുലൈസേഷൻ ടാബ്ലെറ്റുകൾ അങ്ങനെ കൊടുക്കേണ്ട പേഷ്യൻസിന് അങ്ങനെ നമ്മൾ ചെയ്തി ചെയ്തിട്ടുണ്ട് ഡോക്ടർ പറയുന്നത് അനുസരിച്ച് പേഷ്യൻറ്റിന് ബ്രീത്തിങ് എക്സസൈസും കഫിങ് എക്സസൈസ് അങ്ങനെ നമ്മൾ കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ പെട്ടെന്നു സ്ഥിതി വഷളാകുന്ന പേഷ്യൻറ്റുണ്ടായിരുന്നു ഇത്തിരി എയ്ജിടായിട്ടുള്ള പേഷ്യൻറ്റ്സ് ആസ്മയൊക്കെ ഹിസ്റ്ററിയായിട്ടുള്ള പേഷ്യൻറ്റിന് നമ്മൾ ഇപ്പം അവർക്ക് ഇപ്പം പെട്ടെന്നാണ് അവർക്ക് ബുദ്ധിമുട്ട് കൂടുന്നത് പെട്ടെന്ന് അവർക്ക് മുഖമൊക്കെ വീർത്തു വരികയും ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ട് വരികയും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്നൊരാളെ പെട്ടെന്ന് അവർ അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ പെട്ടെന്നു വെൻറ്റിലേറ്റർ സെക്റ്ററിലോട്ടു മാറ്റാറുണ്ട് മാറ്റിയിട്ട് അവർക്കു വേണ്ടാ ആൻറ്റിബയോട്ടിക് ഇൻജക്ഷൻസും നെബുലൈസേഷനൊക്കെ നമ്മൾ കൊടുക്കാറുണ്ടായിരുന്നു അവരുടെ കാര്യങ്ങൾ അവരുടെ ക്രിട്ടിക്കൽ ബന്ധുക്കളോടൊക്കെ അറിവ് ചോ കൊടുതിട്ടുണ്ടായിരുന്നു അതുപോലെതന്നെ കുറച്ച് യങ്ങായിട്ടുള്ള പേഷ്യൻസും അവിടെ കിടപ്പുണ്ടായിരുന്നു യങ്ങ് ലേഡീസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ പേർക്ക് ബുദ്ധിമുട്ട് കൂടുതലും ഈ ആസ്മ ഹിസ്റ്റുള്ള പേഷ്യൻസിനായിരുന്നു കുടുതലും അവർക്ക് ഈ ബുദ്ധിമുട്ട് കു കൂടുന്നത് ശ്വാസം വിടാനിട്ടുള്ള ബുദ്ധിമുട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നു അപ്പോൾ അവർക്കു നല്ലരീതിയിൽ നമുക്ക് കെയർ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അവർക്കു വേണ്ട കാര്യങ്ങൾ അവർ കുറച്ചു കുറേ പേരുകൾ റിക്കവറായിട്ടു പോയിട്ടുണ്ട് കുറേ പേർ അങ്ങു മരണത്തിനും കീഴടങ്ങി അതുപോലത്തെ കണ്ടീഷൻ വളരെ മോശമായതായിരുന്നു വെൻറ്റിലേറ്റർ സപ്പോർട്ട് കൊടുത്തിട്ടും രക്ഷപ്പെടാത്ത കേസുകളൊക്കെ ഉണ്ടായിരുന്നു അതേസമയം രക്ഷപ്പെട്ട കേസുകളും ഉണ്ടായിരുന്നു നമ്മളവർക്കു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതുപോലെ ആ സമയത്ത് ഭയങ്കരമായിട്ടും ആ അന്നത്തെ സിറ്റുവേഷൻ ഭയങ്കര മോശമായിരുന്നു വെൻറ്റിലേറ്ററിൽ കിടന്നിട്ടും രക്ഷപ്പെടാതെ ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ അവരുടെ കണ്ടീഷൻസെല്ലാം ബൈസ്റ്റാൻഡേഴ്സിനോടെല്ലാം പറയുന്നു അപ്പ് അപ്പ് റ്റു ഡേറ്റ് പറയുന്നുണ്ടായിരുന്നു അവരെല്ലാം അത് അക്സെപ്റ്റഡായിരുന്നു ഡോക്ടേഴ്സാണെങ്കിലും വളരെ സപ്പോട്ടായിരുന്നു പിന്നെ വേറെ ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്ത കേസുകൾ നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്നുണ്ടായിരുന്നു അവർക്ക് വെൻറ്റിലേറ്റർ സപ്പോർട്ട് ഇല്ലാത്തവർക്കും നമ്മൾ പെട്ടെന്നു വെൻറ്റിലേറ്റർ അറേഞ്ച് ചെയ്തവർക്ക് പല സപ്പാ രോഗി ശുശ്രൂഷയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ വേണ്ട നെബുലൈസേഷന് ആന്റിബയോട്ടിക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് അവരെ നോർമൽ സ്റ്റേജിലോട്ടു കൊണ്ടുവരാൻ പരമാവധി ശ്രദ്ധി ശ്രമിച്ചിട്ടുണ്ട് അവരുടെ ബൈസ്റ്റാൻസിനോടെല്ലാം ഈ കാര്യങ്ങൾ പേഷ്യൻ്റിനെയൊക്കെ കുറിച്ചുള്ള കണ്ടീഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ ഹോപിറ്റൽ റെഫർ ചെയ്ത് നമുക്കിവിടെ അത്രയ്ക്ക് ഇതില്ലാതെ വരുന്നവരെ മാത്രമാണ് നമ്മൾ വേറെ ഹോസ്പിറ്റലിലോട്ടു റെഫർ ചെയ്തിട്ടു വിട്ടിട്ടുള്ളത് അങ്ങനെ കുറേ യങ്ങായിട്ടുള്ളവരും പ്രായമായിട്ടുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക് ഒക്കെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ വേറെയൊന്നും അറപ്പൊന്നും കൂടാതെ അവർക്ക് വേണ്ട ശുശ്രൂഷയൊക്കെ ചെയ്യാൻ പറ്റിയത് കോവിഡിൻ്റെ പ്രോട്ടോകോളെല്ലാം വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ അവർക്കു ചികിത്സ കൊടുക്കാൻ പറ്റിയതുകൊണ്ട് അഭിമാനം തോന്നുന്നുണ്ട്